എൻ്റെ സെക്കൻറ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേയാണ് ഓർഡർ ചെയ്ത് അത് വന്നത് പത്ത് പത്ത് കണ്ടെയ്നേഴ്സ് ആണ് ഓർഡർ ചെയ്തത് അതായത് നമുക്ക് മുളകുപ്പൊടി മല്ലിപ്പൊടി പിന്നെ രണ്ടെണ്ണം അതേ കളർ തന്നെ വലുതും ഓർഡർ ചെയ്തു പിന്നെ ഈ അരിപ്പൊടി അങ്ങനത്തെയൊക്കെ നമുക്ക് കുറച്ച് കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി അപ്പം അത്യാവശ്യം നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം അതായത് സാധനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ഫിനിഷ് വരുന്നത് പോലത്തെ ഒരു സാധനമാണ് മേടിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ കാണാനൊരു ഗ്ലാസ്സിൻ്റെ ലുക്ക് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്ക് ആണ് പ്ലാസ്റ്റിക്ക് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത് പക്ഷേ പ്ലാസ്റ്റിക്ക് ആവുമ്പോൾ ആണല്ലോ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്നത് നമ്മളിപ്പോൾ ഗ്ലാസ്സിൻ്റെയൊക്കെ മേടിക്കാൻ നിന്നാൽ അതിൻ്റെ ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ പ്ലാസ്റ്റിക്ക് ആണ് പ്ലാസ്റ്റിക്കിൽ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക്ക് കണ്ടയ്നേഴ്സിൽ ഒന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ നെഗറ്റീവ് എന്നുവെച്ചാൽ പ്ലാസ്റ്റിക്ക് ആണ് എന്നുള്ള നെഗറ്റീവ് മാത്രമേ ആ പ്ലാസ്റ്റിക്ക് കണ്ടെയ്നേഴ്സിനുള്ളൂ വേറെ നെഗറ്റീവ് ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും നമുക്ക് കാണാൻ ഭംഗിക്കും എല്ലാം നല്ലതാണ്